യുവാക്കൾ ഏറ്റവും നോക്കി കാണുന്ന സ്ഥലങ്ങളേതെന്നു പറഞ്ഞു കഴിഞ്ഞാൽ യൂ കെ പോലത്തൊരു സ്ഥലങ്ങളാണ് പിന്നെ അവർ അവർ ഏതൊരു സാഹചര്യത്തിലായാലും ഏതൊരു ജോലി ആയാലും അവരേറ്റെടുക്കാൻ ഒരു മടിയും കാണത്തില്ല കാരണം അവർക്ക് കൃഷി ജോലിയിലാണെങ്കിലും പിന്നെ പെയിൻറ്റ് പണിക്കാണെങ്കിലും ടൈൽസിടാനാണെങ്കിലും അതു പോലെ കാറ്ററിംഗ് പണി ആണ് ഏതൊരു ജോലിക്കാണവർക്ക് പോകാനൊരു മടി പോലും കാണത്തില്ല കാരണമെന്നു വെച്ചു കഴിഞ്ഞാൽ അവർക്കെങ്ങനെയെങ്കിലും പൈസ സമ്പാദിക്കണം എന്നുള്ളൊരു കാര്യം മാത്രം പിന്നെ അവർ ഓരോ യുവാക്കളും വളർന്നു വന്ന ജീവിത സാഹചര്യങ്ങളനുസരിച്ച് അവർ അവർക്ക് അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം വെച്ചു കഴിഞ്ഞാൽ ഇപ്പം നല്ല ഹൈ ലെവൽ ഹൈ ലെവൽ പാ ഹൈ ലെവൽ യുവാക്കളൊക്കെ വള ഹൈ ലെവൽ യുവാക്കൾ അവരുടെ ഫാമിലിക്ക് നല്ല പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അവർക്ക് തൻ്റെ മക്കൾ ജോലിക്ക് പോയില്ലേ കുഴപ്പമില്ല അപ്പം അവർക്കു തന്ന മക്കളെ പിന്നെ പിന്നെ പെയിൻറ്റ് പണിക്ക് വിടാനാണെങ്കിലും കാറ്ററിംഗ് വിടാനാണെങ്കിലും കണ്ടത്തിലിറങ്ങാനാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം അവരുടെ കയ്യിൽ പൈസ ഉണ്ട് അതു കൊണ്ട് അവർക്കതിൻ്റേതായ ആവശ്യങ്ങൾ കാര്യങ്ങൾ ഒന്നുമില്ല അവർക്ക് എങ്ങനെയെങ്കിലും എന്നാൽ തൻ്റെ മക്കളെ പുറം രാജ്യത്തേക്കു വിട്ട് എൻ്റെ പൈസ ഉണ്ടല്ലോ ഞാനതു കൊണ്ട് എൻ്റെ പിള്ളേരെ പൈസ ഇല്ലാത്ത പൈസ ഉള്ളതു കൊണ്ട് ഞാനവരെ എങ്ങനെയെങ്കിലും പഠിപ്പിച്ചോളാം അതിലൊത്ത പഠിപ്പിച്ചോളാം അതു കൊണ്ട് എൻ്റെ മോനെ ഞാൻ പുറം രാജ്യത്തേക്കു വിട്ട് അവരെ അല്ലെങ്കിലും കണ്ടത്തിലിറക്കാൻ അതിലിറക്കാനൊന്നും ഞാൻ വിടത്തില്ല അങ്ങനേതായ ജീവിക്കുന്ന ജീവിതത്തിൽ ജീവിത രീതിയിൽ വളർന്നു വന്ന കുറേ യുവാക്കളുണ്ട് അതൊന്നും ഇല്ലാതെ പട്ടിണിയും പാവപ്പെട്ടവരും തൻ്റെ മക്കളെ കൊണ്ടാശ്രയിക്കുന്ന അമ്മമാരും ഉണ്ട് അവർക്കെങ്ങനെയെങ്കിലും എൻ്റെ മക്കൾ കാരണം എനിക്കെങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ ഇന്ന ജോലി എൻ്റെ മക്കൾ ചെയ്യണം കാരണം അപ്പം ചിലവർ ചില യുവാക്കളാണെങ്കിൽ അമ്മയെയും അപ്പനെയും ഓർത്തിട്ടു വരെ ജോലിക്കു പോകുന്നവരുണ്ട് കാരണമെന്നു വെച്ചു കഴിഞ്ഞാൽ എന്താ ഇഷ്ടമല്ലാത്ത ജോലി ആയി കൂടെ തന്നെ അവർക്ക് തന്നെ വീട്ടുകാരെ ആണ് ഇമ്പോർട്ടൻറ്റ് വീട്ടുകാരെന്ന വീട്ടുകാർക്ക് വേറെ ആരും പൈസ കൊടുക്കാനില്ല ഇല്ലെങ്കിൽ എൻ്റെ അപ്പൻ ഇടക്കാലം കൊണ്ടു മരിച്ചു എൻ്റെ അമ്മ ഇടക്കാലം കൊണ്ടു മരിച്ചു അപ്പം ഞാൻ വേണം എൻ്റെ അനിയത്തിയെ നോക്കാൻ വേണ്ടി അങ്ങനപ്പം ഞാനെങ്ങനെയെൻ്റെ കുടുംബം പുലർത്തും ബാക്കി ഉള്ളവരെ പോലെ അല്ല ഞാൻ ഞാൻ വളർന്ന സാഹചര്യം വേറെയാണ് അപ്പം ഞാനെന്തെങ്കിലും ഇത്ര നാളും എനിക്ക് ഇരുപത്തി രണ്ട് വയസ്സുണ്ട് അപ്പം ഞാനെന്തെങ്കിലും ജോലിക്കു പോയ മാത്രമേ എൻ്റെ വീട് രക്ഷപ്പെടത്തുള്ളൂ എന്നാഗ്രഹിക്കുന്ന മനുഷ്യരും ഉണ്ട് എന്നാഗ്രഹിക്കുന്ന യുവാക്കളും ഉണ്ട് അപ്പം അങ്ങനെ അപ്പം അവർ വളർന്നു വന്ന സാഹചര്യത്തിൽ അവരേതൊരു ജോലിക്കു വേണ്ടി പോയാലും ഇപ്പം ഒരു കക്കൂസ് ടാങ്ക് ക്ളീൻ ചെയ്യാൻ പോയാൽ വരെ വിളിച്ചാലും അതിലൊരു മടിയും കാണത്തില്ല പക്ഷേ ചില മനുഷ്യർക്കൊക്കെ അതിപ്പോഴും പറയുമ്പം നാണക്കേടായിട്ടാണ് വിചാരിക്കുന്നത് പക്ഷേ ഒരു നാണക്കേടും വിചാരിക്കേണ്ട ആവശ്യയില്ല കാരണമെന്നു വെച്ചു കഴിഞ്ഞാൽ പല മനുഷ്യരും പല പല പല സാഹചര്യത്തിലാണ് വളർന്നു വന്നിരിക്കുന്ന അപ്പം ഓരോ സാഹചര്യം പല പല വ്യത്യാസങ്ങളുള്ളതാണ് ചിലവർ നല്ല സാഹചര്യത്തിൽ വളർന്നു വന്നവരുണ്ട് അപ്പം അതുകൊണ്ടവർക്കിതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും വരത്തില്ല അവർക്ക് ഈസി ആയിട്ട് ജീവിക്കാൻ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും പൈസ ഉണ്ട് എൻ്റെ അപ്പനും അമ്മയും പുറം രാജ്യത്താണെങ്കിൽ അവർക്കുറപ്പായിട്ടും ജീവിക്കാൻ പറ്റും അവർക്ക് ജോബുണ്ടെങ്കിൽ എനിക്കെന്തിനാണ് പൈസക്ക് ബുദ്ധിമുട്ട് അവരുണ്ടല്ലോ എന്നെ നോക്കാൻ വേണ്ടി ഇപ്പം ക കെട്ടിച്ചു വിട്ട് കെട്ടി കെട്ടി കഴിഞ്ഞാലും എനിക്കപ്പം ഞാനെന്തിനാണ് കല്യാണം കഴിച്ചെനിക്ക് നല്ലൊരാളെ അമ്മ എനിക്ക് കണ്ടു പിടിച്ചു തരും അതുകൊണ്ടു ഞാൻ പുറത്തു പോയി എല്ലാം നോക്കിയാൽ മതി എന്നുള്ളൊരു ചിന്ത ആയിരിക്കും അവർക്കു വരുന്ന അവർ വേറൊരു കാര്യവും ചിന്തിക്കാറോ ആലോചിക്കാറോ ഒന്നുമില്ല അതു കൊണ്ട് സാധാരണക്കാരുടെ സാധാരണ മനുഷ്യൻ്റേത് യുവാക്കളുടെ ജീവിത സാഹചര്യം പോലിരിക്കും അവരേറ്റെടുക്കുന്ന ജോലിയും എന്നുള്ളത് അവരെന്തു സാഹചര്യം എന്തൊരു ജോലിക്കു പോകണമെങ്കിലും അവരുടെ ജീവിത സാഹചര്യം അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ആയിരിക്കും അവർ അത് തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അല്ലാതെ